വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആശയവിനിമയം തടസ്സമായിട്ടും ബുദ്ധിമുട്ടായിട്ടും നേരിടാറുണ്ട് കാരണം നമ്മൾക്ക് അറിയാവുന്ന വലിയ ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് കൂടുതലായിട്ട് അറിയാവുന്നത് മലയാളമാണ് കൂടാതെ ഹിന്ദി എന്നിവയും അറിയാമെങ്കിലും നമ്മൾ സംസാരിക്കാൻ കൂടുതലായിട്ട് അറിയുന്നത് നമ്മൾക്ക് മലയാളമാണ് പക്ഷേ അത് മറ്റ് രാജ്യങ്ങളിലും ഭാഷയിലും ഉള്ള സമ പ്രദേശങ്ങളിൽ അവർക്ക് അറിയണമെന്നില്ല അപ്പോൾ നമ്മൾ കൂടുതലായി ശ്രമിക്കാറ് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നതാണ് പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ തന്നെ ചില ഗ്രാമങ്ങളിലും ചില നാട്ടുകാർക്ക് അതേ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തവരുണ്ടാകും മനസ്സിലാവാത്തവരുണ്ടാകും അപ്പോൾ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചില സമയങ്ങളിൽ ഫോൺ വച്ചിട്ട് നമ്മൾ അത് തർജ്ജിമ ചെയ്തിട്ട് അവരോട് സംസാരിക്കാറുണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾക്ക് അവരെ ആശ നമ്മൾ ആംഗ്യഭാഷയിൽ വരെ സംസാരിച്ച് ചില സമയങ്ങളിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് പിന്നെ ചില സമയങ്ങളിൽ തർജിമ ചെയ്യുന്ന ആൾക്കാരവിടെ തന്നെ ഉണ്ടാകും അവിടെ അവരെ സഹായം തേടിയിട്ട് നമ്മളത് തർജ്ജിമ ചെയ്തിട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളവരെ ആശയവിനിമയം നടത്താറുണ്ട് കൂടുതലായി നമ്മൾ ഫോണാണ് ഉപയോഗിക്കാറ് ഈ സന്ദർഭങ്ങളിൽ നമ്മളത് ട്രാൻസലേറ്റ് സോറി തർജ്ജിമ ചെയ്തിട്ട് നമ്മളത് ഭാഷ സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കാറാണുള്ളത് കൂടുതലായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനാണ് നമ്മൾ നോക്കാറ്